നവംബർ പതിനാല് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഡിസംബർ ഇരുപത്തഞ്ച് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാർച്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനാല് ആയിരത്തിത്തൊള്ളായിരത്തി എമ്പത്തിയൊൻപത് നവംബർ ഒന്ന് രണ്ടായിരത്തി പത്തൊൻപത്